ഹലോ ഇത് കാർ വാഷ് സെൻ്ററല്ലേ അപ്പം എനിക്കൊരു കാറ് വാഷിങ്ങുണ്ടായിരുന്നപ്പം അതിൻ്റെ കാര്യങ്ങളറിയാനായിട്ട് വിളിച്ചതായിരുന്നു എനിക്ക് നാളെയും ഒരു ഫംഗ്ഷനുണ്ടപ്പം ഞാനെന്നത്തേക്ക് കൊണ്ടുവരണം അതിന് അപ്പോയിൻമെൻ്റ് അങ്ങനെയെന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഓക്കെ അപ്പം നാളത്തേക്ക് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തേക്കാം പിന്നെ ഇത് റേറ്റൊക്കെ എങ്ങനെയാണ് ഏത് ടൈപ്പ് വാഷുണ്ടപ്പം പറ്റുന്ന ആ ഓഹ് നാളെ ഒരുച്ച നാളെ എപ്പോഴായാലും കുഴപ്പമില്ല എനിക്ക് നാളത്തെ കഴിഞ്ഞിട്ടെങ്കിലും മുമ്പ് കിട്ടിയാൽ മതി ആ ആകട്ടെ ഈ വാഷിങ്ങൊക്ക കുറേ ടൈപ്പുണ്ടല്ലൊ അപ്പോൾ ഏത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നു പറഞ്ഞുതരുമോ റേറ്റൊക്കെ എന്തായാലും വ്യത്യാസമുണ്ടിതിന് അപ്പം ഇപ്പോൾ വണ്ടി പോളിഷുകൂടി ചെയ്യണമായിരുന്നു അപ്പോൾ അതുകൂടി ചെയ്ത് തരുമോ ഇപ്പോൾക്കൂടി അല്ല അത് എക്സ്ട്രാ ഒന്നും വിഷയമില്ല ഇപ്പോൾ നമ്മൾക്ക് പോളിഷ് ചെയ്യണം എന്നാൽക്കൂടി സെറാമിക്കൊക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടോ എനിക്ക് നാളെ കഴിഞ്ഞിട്ട് എനിക്കാവിശ്യം ഉണ്ട് കിട്ടണമായിരുന്നു സെറാമിക് കോട്ടിംഗൊക്കെ

ആണല്ലേ അപ്പോൾ പോളിഷ് ചെയ്തു കിട്ടുമല്ലോ അപ്പം നാളെ ഞാനൊരു കൊണ്ടുവന്നേക്കാം അപ്പം നിങ്ങളുടെ ഈ അപ്പോയിൻമെൻ്റ് എടുക്കാൻ സൈറ്റോ കാര്യങ്ങളൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുണ്ടോ

അതിപ്പൊ ഞാൻ വണ്ടി കൊണ്ടുത്തരണോ നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ വന്നെടുക്കുമോ അപ്പോൾ ഈ ഓക്കെ നിങ്ങൾ വന്നെടുത്തപ്പം ഞാൻ ലൊക്കേഷനൊക്കെ ഞാനതിലിട്ടേക്കാം അപ്പോൾ പിന്നേ നിങ്ങൾക്കിനി സർവീസിംഗുണ്ടോ ഓയിൽ ചേഞ്ചിംഗൊക്കെയുണ്ടോ അതോ ഈ വാഷിംഗ് മാത്രേ എനിക്ക് എനിക്കിപ്പോൾ അർജൻ്റായതുകൊണ്ടിപ്പോൾ വാഷിംഗ് മാത്രം മതി ഞാൻ അത് കഴിഞ്ഞ ഒരു ദിവസം വണ്ടി കൊണ്ടുത്തരാം സെറാമിക്ക് ചെയ്ത് ഫുൾ ചെക്കും ചെയ്ത് ഓയിലും മാറി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമായിരുന്നു ആ അപ്പം എൻ്റെ ഈ ഹെഡ് ലാമ്പിൻ്റെ ഒരു സൈഡിൽ ചെറുതായിട്ട് പോറിയിരിപ്പുണ്ടപ്പം ബോഡി അതിപ്പം നാളെ വാ പറ്റത്തില്ലായിരിക്കും അല്ലെ മാറാൻ അങ്ങനെ കുറച്ച് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അല്ലെങ്കിൽ അറിയത്തില്ല അപ്പം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ചെയ്യു അല്ലെങ്കിലത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാം ആ ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സാർ